അയ്യൊടാ നിന്റടുത്ത് പറയാൻ മറന്നല്ലോ

ആ അത് വേറൊന്നും അല്ലെടാ തുടങ്ങണ ആ ഒരു തിരക്ക് കാരണമേ വിട്ടു പോയതാണ് അല്ല അവളിപ്പോൾ ഇവിടെ വെറൈറ്റിയൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഫുള്ള് നമ്മുടെ കള്ള് ഷാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഫുഡും ഉണ്ട് ഫുഡാണ് മെയിന് നമ്മുടെ ഐറ്റം കള്ള് ഷാപ്പിന്റെ ഒപ്പം നമുക്ക് നമ്മുടെ ഷാപ്പിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഈ മീന് കാര്യങ്ങളൊക്കെയാ മീനിന്റെ ഫുഡ്ഡ് ഇപ്പോൾ നോൺ ഐറ്റവും കാര്യങ്ങളൊക്കെയാണ് ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ

പിന്നെന്ത് അവിടെ മെയിനായിട്ട് ഫുഡ്ഡ് തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് നമ്മളെ കുട്ടനാടിന്റെ എന്താ പറയുക നമ്മൾ കുട്ടനാടൊക്കെ പോയി വന്നാൽ കഴിക്കാൻ വേണ്ടി ഓരോ ഇതിൽ കയറുമല്ലോ ഷാപ്പിൽ കയറുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ചിലവാവണതെങ്ങനെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് തലേ ദിവസത്തെ മത്തിക്കറി തലേ ദിവസത്തെ എന്നാൽ മറ്റേ ആട്ടിന്റെ തലക്കറി ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവാകണതും അതാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും നമുക്ക് സ്റ്റോക്കുണ്ടാവും പിന്നൊരു സാധനം നമുക്ക് നാളേക്കും ആളുള്ളതുകൊണ്ട് അതിനനുസരിച്ച് എല്ലാ സമയത്തും ഫുഡ്ഡും ഉണ്ടാവും നമ്മൾ ആ ഒരു ടേസ്റ്റ് കുട്ടനാടൻ ടേസ്റ്റാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണത് ഏഹ് നിന്റടുത്ത് പറയാൻ മറന്നു കറികളെല്ലാം ഉണ്ടാവും ആ പൊറോട്ട പിന്നെയെന്ത് പൊറോട്ട ചപ്പാത്തി ഇഡ്ഡ്ലി ദോശ ഓ ഇഡ്ഡ്ലിയൊക്കെയുണ്ട് ഇഡ്ഡ്ലി ദോശ ആ കപ്പ പുഴമീൻ ആ പിന്നെ ഞായറാഴ്ച്ച ഞായറാഴ്ച്ച സ്പെഷ്യലായിട്ട് മുയലിറച്ചി

ഓ നിന്റെ അടുത്ത് പറയാൻ മാറന്നെടാ

രാവിലെ നേരങ്ങളിൽ ഓഫ് ആയിരിക്കും കേട്ടോ ഒരു പത്ത് മണിക്ക് ശേഷം പത്ത് മണിക്ക് ശേഷമാണ് നമുക്ക് കഴിക്കാനെന്തെങ്കിലും ഉണ്ടാവുള്ളു രാവിലെ നേരത്ത ഒന്നും ഉണ്ടാവില്ല ആ ഒരു പത്ത് കള്ള് കുഴപ്പമില്ല നമ്മളിവിടെ ചെത്ത് കള്ളാണ് ഇറങ്ങണത് നമുക്ക് ഏകദേശം ഒരു ദിവസമൊക്കെ നൂറ് നൂറ്റമ്പത് ലിറ്ററ് വരെ പോവും പനയുണ്ട് തെങ്ങും ഉണ്ട്

ആ ശരി പിന്നെയെന്താ നമ്മള്ളുണ്ടാവും നീ വന്നോ ഞാനില്ലാത്ത സമയത്ത് വരികയാണെന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ ഞാനുണ്ടല്ലോ നിന്റടുത്ത് ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ